ആ ഞാൻ ഒരു പ്രാവിശ്യം അങ്ങനെയുണ്ടായിരുന്നു മീൻസ് സ്വര ചേർച്ചയെന്നൊക്കെ പറയുമല്ലോ അദ്ദേഹം ആൾ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് ആൾക്കും ഒത്തു പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ ആൾ ഭയങ്കര ഹാർഷായിട്ട് എന്ത് സംസാരിക്കുകയൊക്കെ ഉണ്ടായി ഞാൻ അതിന് ആ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്നു പറയണത് നമ്മള് സ്വയം നിയന്ത്രിതനാവുക എന്നുള്ളതാണ് ആളെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ ആൾക്കൊപ്പം ഉണ്ടാകണ ഒരിതിൽ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ നമ്മൾക്ക് അങ്ങോട്ട് പറയാനുള്ളത് നമ്മൾ സ്വയം സംയമനം പാലിക്കുക എന്നുള്ളതാണ് ഒറ്റ ഇതെ ഉള്ളൂ ക്ഷമ അത് മാത്രമാണ് അവിടെ ചെയ്യാനുള്ളൂ അതിലൊക്കെ നമ്മൾ വിജയിക്കും അത്രയേയുള്ളൂ